ഹാലോ ക്യാബ് ഏജൻസി അല്ലെ ഒരു കാറ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഡ്രൈവർ വേണ്ട സ്വന്തമായിട്ട് ഡ്രൈവ് ചെയ്തു പോകാൻ വേണ്ടിയിട്ടായിരുന്നു ഞാനും എൻ്റെ സുഹൃത്തുക്കളും എല്ലാവരും കൂടി ഒന്ന് കറങ്ങാൻ വേണ്ടിയിട്ടായിരുന്നു തുഷാരഗിരിയും കോഴിക്കോട് ബീച്ചും അങ്ങനെ എല്ലാം ഒന്നു റിസോർട്ടുകളിലൊക്കെ കൂടി ഒന്ന് പോയിട്ട് വരാൻ വേണ്ടിയിട്ടായിരുന്നു രണ്ട് ദിവസത്തെ പരിപാടിക്കാണ് നിങ്ങൾ കിലോ മീറ്ററിൻ്റെ കണക്കിലാണോ വാടക എടുക്കുന്നത് അതോ ദിവസത്തിന് ഇത്ര അൺലിമിറ്റഡ് ആയിട്ട് പോകാം എന്നുള്ള രീതിലാണോ വാടക വരിക ഓക്കേ കാറെടുക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ലൈസൻസിൻ്റെ കോപ്പിയോ വേറെന്തെങ്കിലും പ്രൂഫ് നൽകേണ്ടി വരുമോ ഓക്കേ താങ്ക് യൂ